ഇന്ന് എൻ്റെ വീട്ടിൽ മൂന്ന് ആടുകളാണ് ഇപ്പം വളർത്തുന്നത് ഞാനിത് അടുത്ത വീടുകളിൽ നിന്നും ഒരു തള്ളയും രണ്ട് കുട്ടിയേയും കൂടെ വിലയ്ക്ക് മേടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അതിൽ ഒരു മുട്ടൻ കുട്ടിയെ ഉണ്ടായിരുന്നത് വിറ്റു ആട് ആദ്യം പ്രസവിച്ച് രണ്ട് കുട്ടിയായിരുന്നു ഒരു പെണ്ണും ഒരാടും ഒരാണും അതിൽ ആണിനെ മൂന്നര നാല് മാസമായപ്പം വിറ്റു അത് കഴിഞ്ഞ് വീണ്ടും അതിനെ ചവിട്ടിച്ച് ഇപ്പോൾ അത് പ്രെഗ്നൻ്റാണ് പിന്നെ അത് ഞങ്ങളുടെ നാട് കുട്ടനാടാണ് അപ്പം വെള്ളത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കൂട് ശകലം പൊക്കിയാണ് കെട്ടിയിരിക്കുന്നത് അതായത് ഇരുമ്പു തൂണിൽ പൊക്കി അതിൻ്റെ മുകളിൽ തട്ടൊക്കെ അടിച്ച് മേൾക്കൂരയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇതിൻ്റെ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ തള്ളയാടിനെ ഞങ്ങൾ സുമംഗലിയെന്നാണ് വിളിക്കുന്നത് ഇതിന് രണ്ട് കുട്ടിയുണ്ട് അതിലൊരു കുട്ടിക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് അതും പ്രെഗ്നൻ്റാണ് അതിനെ ഞങ്ങൾ പ്രിയങ്കയെന്നാണ് വിളിക്കുന്നത് പിന്നെ വേറൊരു കുട്ടിയുണ്ട് അതിനെ ഞങ്ങൾ മോളിയെന്ന് വിളിക്കുന്നു രാവിലെ അഴിച്ച് പറമ്പിൽ കെട്ടും ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ച് കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടും അതിനുശേഷം ഇതുങ്ങൾക്ക് നമ്മൾ പുളിയരിയും പിണ്ണാക്കും ഒക്കെ വേവിച്ച് കൊടുക്കും അങ്ങനെ ആ കുടിച്ചതിന് ശേഷം ഒരു നാലു മണിവരെ ഇതുങ്ങൾ കൂട്ടിൽ വിശ്രമിക്കും നാലു മണിക്ക് ശേഷം വീണ്ടും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വയലിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെയായിട്ട് കൊണ്ടുകെട്ടി ഇതുങ്ങൾ തീറ്റയൊക്കെ തിന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരികയാണെങ്കിൽ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കും മരുന്ന് മേടിച്ച് കൊണ്ടുകൊടുക്കുമ്പോൾ അതുകൂടാതെ കാൽസ്യം ടോണിക്ക് തരും അത് അവിടെനിന്ന് തീറ്റയ്ക്ക് അകത്ത് ഒരാറ് അഞ്ച് മില്ലി എന്നുള്ള കണക്കിൽ ചേർത്തു കൊടുക്കും പിന്നെ വേറെ ചിലത് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇതുങ്ങൾക്ക് എല്ലാ മാസവും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കും പിന്നെ ഇതുങ്ങളെ ഈ ചവിട്ടിക്കുന്ന ആ സമയം ആകാൻവേണ്ടി തള്ളയാടിനും പ്രസവിച്ച് ഏകദേശം ഒരാഴ്ച്ച പതിനഞ്ച് ദിവസത്തെക്കുള്ളിൽ എങ്കിലും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര മാസം കഴിയുമ്പോൾ ഇതിനെ നമ്മൾക്ക് ചവിട്ടിക്കാവുന്ന ഒരു സ്റ്റേജാവും തള്ളയാടിനെ ഞങ്ങളെ തള്ളയാടിനെ എപ്പോഴും പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ പാൽ കിട്ടും രണ്ട് കുട്ടികളുണ്ടെങ്കിലെ മുഴുവൻ പാലും കറക്കത്തില്ല കുറേ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കും അങ്ങനെയാണ് പിന്നെ എല്ലാ ദിവസവും കൂട് വൃത്തിയാക്കും ഇതുങ്ങളെ കുളിപ്പിക്കും പിന്നെ കുറച്ചൊക്കെ പുല്ല് ചെത്തിക്കൊണ്ട് വന്ന് കൊടുക്കും ആ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിടക്കുന്ന ഈ കറുകപുല്ല് പിന്നെ ഈ വയലിൽ ഉണ്ടാകുന്ന കവട അങ്ങനെയൊക്കെയുള്ള പുല്ലുകൾ പിന്നെ പല സൈസ് കറുകയുണ്ട് പിന്നെ ഈ വള്ളിപുല്ലുകളുണ്ട് ഈ പാൽവള്ളിയെന്നൊക്കെ പറയുന്ന വള്ളിപുല്ല് നല്ലപോലെ കഴിക്കും പ്ലാവില കൊടുക്കും അങ്ങനെ പുല്ലുകൾ ചെത്തി രാത്രിയിൽ ഇതുങ്ങളെ കൂട്ടികൊണ്ട് കയറ്റി കെട്ടിയതിനു ശേഷം എല്ലാ ദിവസവും ഇതുങ്ങക്ക് അൽപം പുല്ല് കൊടുക്കും ഞങ്ങൾ പിന്നെ കൂട്ടിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഫാന് അറേഞ്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് രാത്രി ഒരു ഏഴുമണി ഏഴരയോക്കെയാവുമ്പോൾ ഫാൻ ഓൺ ചെയ്യും നേരം വെളുത്തുകഴിഞ്ഞെ ഫാൻ ഓഫ് ചെയ്യത്തുള്ളൂ അതുവരെ അതുകൊണ്ട് ഇതുങ്ങൾക്ക് കൊതുകിൻ്റെ വലിയ ശല്യം ഇല്ലാതെ പോകാൻ പറ്റും